രണ്ട് ഏഴ് രണ്ടായിരത്തി ഒൻപത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി നാല് ഏഴ് ആറ് രണ്ടായിരത്തി എട്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഒൻപത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഒന്ന്